അങ്ങനെ ഒരു തീരുമാനങ്ങളൊന്നുമില്ല എന്തെങ്കിലും നമ്മൾ ഇപ്പം റോഡിലൂടെ നടക്കുന്ന സമയത്തോ വീട്ടിൽ ഇരിക്കുന്ന സമയത്തോ എന്തെങ്കിലും ഒക്കെ കാണുന്ന സമയത്തായിരിക്കും നമ്മുടെ മനസ്സിൽ അത് എന്തുകൊണ്ട് ഒരു ചിത്രം ആക്കിക്കൂടായെന്ന് ഒക്കെ തോന്നുന്നത് ചില സമയത്ത് ഞാനിങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചിത്രങ്ങൾ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് പെട്ടെന്ന് വരക്കാൻ തോന്നും അങ്ങനെ കുറേ രൂപങ്ങളും മനസ്സിക്ക് വരാറുണ്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക പോലും ഉണ്ടാകില്ല അത് വരയ്ക്കണം എന്ന് പക്ഷേ ചില രൂപങ്ങൾ മനസ്സിലേക്ക് വരുമ്പം നമ്മൾ അത് വരയ്ക്കണം വരയ്ക്കാറുണ്ട് ഞാൻ അങ്ങനെ പിന്നെ നമ്മൾ ഫ്രണ്ടിലെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ആകാശമൊക്കെ നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാറുണ്ടെങ്കിൽ അതൊക്കെ വരച്ച് ഞാൻ പേപ്പറിൽ സൂക്ഷിക്കാറുണ്ട് അല്ലാതെ നമ്മൾക്ക് ഇന്നത് വരയ്ക്കണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി തീരുമാനിച്ചു വെച്ച തീരുമാന പ്രകാരം വരയ്ക്കാൻ നിൽക്കാറില്ല പിന്നെ ഇഷ്ടപ്പെട്ട് വരയ്ക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന കുറേ ഞാൻ കൃഷ്ണനും രാധയെയും ഒക്കെ നമ്മൾ ഒരുപാട് വരയ്ക്കാറുണ്ട് എൻ്റെ ഒട്ടുമിക്ക ചിത്രങ്ങളും കൃഷ്ണനും രാധയും ആയിരിക്കും പിന്നെ എന്താ കഥകളി രൂപങ്ങൾ പിന്നെ എന്താണ് അങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങളൊക്കെ നമ്മൾ ബുക്കുകളിലൊക്കെ വരച്ചു വെയ്ക്കാറുണ്ട്